ചിത്രം വരച്ച് തുടങ്ങുന്നവർക്ക് തുടങ്ങുന്നവർക്കും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ട് എനിക്കൊരു കുറച്ച് കാര്യങ്ങളേ പറയാനുള്ളു അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് നിർദേശങ്ങളെ ഉള്ളു എന്താന്ന് വെച്ചാൽ സ്വന്തം സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമോ അവരുടെ പ്രേരണയാലോ വരയ്ക്കാതിരിയ്ക്കുക ഇപ്പം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് സ്വന്തം കഴിവ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിലൊരു ആത്മാർത്ഥത കാണുമെന്നാണ് ഞാൻ വിശ്വസിയ്ക്കുന്നത് മറ്റൊരാൾടെ നിർബന്ധ പ്രകാരം വരയ്ക്കുകയാണെങ്കിൽ അതിൽ ആ ആ ചിത്രകാരന്റെ ചിന്തകൾ അയാൾടെ ഭാവന അതിൽ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്താത്തവർ കണ്ടെത്താത്തവരുണ്ടെങ്കിൽ ആ കഴിവുകൾ കണ്ടു കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക